നമ്മള് കൂടുതലായും വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആൾക്കാരാണ് സൊ നമുക്ക് എന്താണ് ഇങ്ങനെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു അടഞ്ഞുകൂടിയ ഒരു ചുറ്റുപാടിൽ നിന്ന് പുറത്തേക്കിറങ്ങി എന്താണ് മറ്റുള്ളവരെങ്ങനെയാണ് ജീവിക്കുന്നത് അതേപോലെ തന്നെ അവരുടെ ലൈഫ് എങ്ങനെയാണ് അതേപോലെ അവരുടെ കൾച്ചേഴ്സ് അവരുടെ ഓരോരോ കാര്യങ്ങള് അതൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ നമുക്ക് ഭയങ്കര ഇൻററസ്റ്റിങ്ങായിട്ടുണ്ടാകും അപ്പോൾ കൂടുതലായിട്ട് എന്താണ് നമുക്ക് നമ്മടെ മനസ്സിനൊരു സന്തോഷം കിട്ടാനും അതേപോലെ തന്നെ മറ്റുള്ളവരുടെ ഒരു ലൈഫ് എങ്ങനെയാണ് അവരെങ്ങനെയാണ് അത് ഇൻഫ്ലുൻസ്സ് ചെയ്യുന്നത് ഓരോരോ ചുറ്റുപാട് നമ്മുടെ ചുറ്റുവുള്ള കാര്യങ്ങളിൽ നിന്നാണ് നമ്മള് ഡെയിലി ആയിട്ട് കാണുന്നത് അപ്പോൾ നമ്മള് പുറത്തേക്ക് ഒരു സ്ഥലത്തേക്ക് പോകുമ്പം നമ്മുടെ ആ സറൗണ്ടിങ്സ് എന്താണ് നമ്മുടെ ചുറ്റുപാട് എന്താണ് മാറുന്നുണ്ട് അപ്പോൾ ഓരോരോ കെട്ടിടങ്ങളായാലും കടല് സൂര്യൻ അതിനൊക്കെ പല പല ഇൻഫ്ലുൻസുണ്ടാക്കുന്നുണ്ട് ചില കാഴ്ചകളോക്കെ കണ്ടാൽ നമ്മള് എന്താണ് വല്ലാതെ നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നത് തന്നെയാണ് അപ്പോൾ ഒരു സൺസെറ്റ് സൺറൈസ് ഒക്കെ കാണാൻ പോകുമ്പോൾ തന്നെ എന്താണ് നമുക്ക് വലിയൊരു സന്തോഷം ഉണ്ടാകുന്നുണ്ട് അപ്പം സ്ഥിരമായിട്ട് നമ്മള് യാത്ര ചെയ്യാമെന്ന് പറഞ്ഞാല് നമുക്ക് അറിയുന്ന ആൾക്കാരുടെ അടുത്തേക്കായിരിക്കും നമ്മള് യാത്ര ചെയ്യുക നമ്മള് വലിയ വലിയ യാത്രകൾ എന്നൊക്കെ പറയുമ്പം ഇങ്ങനെ ദൂരെയുള്ള സ്ഥലത്തേക്ക് വല്ലപ്പഴും കൊല്ലത്തിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ നമ്മള് പോയി എന്ന് വരുവൊള്ളു പക്ഷെ നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന യാത്രകളാണ് നമ്മുടെ പരിചയത്തിലുള്ള നമ്മുടെ ബന്ധുക്കാരുടെ അടുത്തേക്ക് അപ്പോൾ അവരായിട്ട് കുറേനേരം സംസാരിച്ച് ഇരിക്കുക അവരുടെ വീടും ചുറ്റുപാടും നമ്മള് ആ രണ്ട് ദിവസമാണ് അവിടെ പോയി നിൽക്കുന്നതെങ്കിൽ തന്നെ നമ്മള് വല്ലാതെ നമ്മളെന്താണ് ആകർഷിക്കും നമുക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു ഇതാവും നമ്മളിപ്പോൾ നമ്മുടെ കസിൻസിൻ്റെ വീട്ടില് ടൈം സ്പെൻറ്റെ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷമാണ് നമ്മൾടെ ചുറ്റുപാടും ഉള്ളതിൽ നിന്നോർ മാറ്റം വരുമ്പോൾ നമുക്ക് സ്ട്രെസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ നല്ലപോലെ കുറയും അതേപോലെ തന്നെ നമ്മുടെ അടുത്തുള്ള യാത്രകളെന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചില ടൂറിസ്റ്റ് സ്പോട്ടിലാണെൽ തന്നെ നമ്മള് ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ പോയിരിക്കും അതൊക്കെ നമ്മളുടെ സ്ട്രസ്സ് നമ്മുടെ ജീവിതത്തിൻ്റെ കുറെ പ്രശ്നങ്ങളുണ്ടാവുമല്ലോ അതിനൊക്കെയൊരു റസ്റ്റ് ഒരു ഒരു ഫ്രീ ആയിട്ട് നിൽക്കാൻ വേണ്ടിയാണ് നമ്മളങ്ങനെയൊക്കെ ചെയ്യുന്നത്